ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് കളികൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഫുട്ബോൾ നീന്തൽ പോലെയുള്ള കളികളിൽ ഏർപ്പെടുന്നത് നമ്മുടെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിന് വളരെ അധികം സഹായിക്കുന്നു നമ്മളിൽ ജീവിത ശൈലി രോഗങ്ങളായ പ്രമേഹം ഉയർന്ന രക്ത സമ്മർദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുന്നതിനും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനും കളികൾ വളരെ അധികം വലിയ പങ്കാണ് വഹിക്കുന്നത് കൂടാതെ സ്പോർട്സ് കളിക്കുമ്പോൾ നമ്മളിൽ വളരെ അധികം ഊർജ്ജം ആവശ്യമാണ് അതുകൊണ്ടന്നെ ടെന്നീസ് നീന്തൽ പോലുള്ള കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരം വളരെ അധികം ക്ഷീണിക്കുന്നു ഇത് നന്നായി ഉറങ്ങുന്നതിനും നമ്മളെ സഹായിക്കുന്നു ദിവസവും ഒരുപാട് കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെ മികച്ച ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ആങ്ങ്സൈറ്റി മുതലായവയെല്ലാം കുറക്കുന്നതിനും നമുക്ക് മാനസികാരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും നമ്മുടെ സങ്കടകരമായ അവസ്ഥകളൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി വെച്ച് കൊണ്ട് റ്വിനോദങ്ങളിലേർപ്പെടുന്നതിനുമെല്ലാം കളികൾ വളരെ അധികം ഉപകാരപ്രദമായ ഒന്നാണ് ഇത് നമ്മുടെ മാനസിക അവസ്ഥ മെച്ചപ്പെട്ടതാക്കുന്നതിനും വളരെ അധികം സഹായിക്കുന്നു നമ്മുടെ ഭാരം മെയിൻറ്റയ്ൻ ചെയ്യാനും നല്ല കറക്റ്റ് ബി എം ഐ ഉണ്ടാക്കുന്നതിനും കളികൾ വളരെ അധികം ഉപകാരപ്രദമാണ് അതുപോലെ ശ്വസോഛ്വാസ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാക്കുന്നതിനും നമ്മുടെ ഇൻഹൈൽ എക്സ്ഹൈൽ ഒക്കെ നന്നാക്കുന്നതിനും കളികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യവും മൊത്തത്തിലുള്ള ശരീരാരോഗ്യവും എല്ലാം വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ടെൻഷൻ ഒക്കെ കുറച്ച് നമ്മുടെ ബുദ്ധിയുടെ വളർച്ചക്കും മസ്സിൽ വളരുന്നതിനും ബോൺസ് വളരുന്നതിനും എല്ലാം കളികൾ വളരെ അധികം ഉപകാരപ്രദമാണ് നമ്മുടെ രക്ത സംക്രമണം അതായത് ബ്ലഡ് സർകുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം കളികൾ വളരെ അധികം സഹായകരമാണ് നമ്മളിലുള്ള ഉൽകണ്ഠ വിഷാദം ടെൻഷൻ പോലുള്ളവ കുറയ്ക്കുന്നതിനും കുറയ്ക്കുന്നതിനും നന്നായി ജീവിതം ആസ്വദിക്കുന്നതിനും കളികൾ വളരെ അധികം ഉപകാരപ്രദമാണ്